ഇപ്പോൾ നമ്മള് ബലഹീനത അല്ലെങ്കിൽ ശക്തി ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കണം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ബലഹീനത ഞാൻ പറയുവാണെന്നു പറഞ്ഞു കഴിഞ്ഞാൽ വാക്ക് അല്ലെങ്കിൽ ഞാൻ കൊടുത്ത വാക്ക് എങ്ങനേങ്കിലും അത് ഇപ്പോൾ എന്ത് നഷ്ടം വന്നാലും എന്താ പറയുക അത് ചെയ്ത് കൊടുക്കണം അങ്ങനെ ഉള്ള രീതിയിലുള്ള ആളാണ് ഞാൻ അപ്പോൾ അതിപ്പോൾ ബിസിനസ്സ് ആയാലും ശരി ഫ്രണ്ടിനോട് പറഞ്ഞ കാര്യങ്ങൾ ആയാലും ശരി ആരോട് പറഞ്ഞ കാര്യങ്ങൾ ആയാലും ഇപ്പോൾ നമ്മൾ ഒരു വാക്ക് അവരോട് പറഞ്ഞ അത് നമ്മള് ഞാൻ ചെയ്ത് കൊടുക്കും അപ്പോൾ അതിൽ നിന്ന് കുറെ നഷ്ടവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ചില സമയത്ത് നമുക്ക് ഇപ്പോൾ കച്ചവടം എന്ന് പറയുന്ന സമയത്ത് എന്താ പറയുക നമുക്ക് പറഞ്ഞ എമൗണ്ട് അവർക്ക് അല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റ് മാർക്കറ്റ് അനുസരിച്ച് ആണ് നമ്മുടെ കച്ചവടവും കാര്യങ്ങളൊക്കെ ഇരിക്കുക അപ്പോൾ മാർക്കറ്റില് വില റേറ്റ് കമ്മി ആയാല് നമുക്ക് ഇപ്പോൾ പറഞ്ഞ വിലയ്ക്ക് ഉടമസ്ഥർക്ക് അല്ലെങ്കിൽ അതിൻ്റെ ക്ലൈൻറ്റിന് അതിൻ്റെ പറഞ്ഞ വില കൊടുക്കണം ആ സമയത്ത് എന്താണ് അല്ലാണ്ട് നമുക്ക് നേരത്ത് പോയിട്ട് വാക്ക് മാറാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറ്റില്ല അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിന് എങ്ങനെ നോക്കിയാലും നഷ്ടം വരികയുള്ളൂ കാരണം അവർക്ക് പറഞ്ഞ പൈസ കൊടുക്കുകയും വേണം അപ്പോൾ നമുക്ക് അതിനു ആ പണി എടുത്തതിന് ലാഭമോ വലിയ ഇതൊന്നും കിട്ടില്ല നമ്മള് ആ പണി എടുത്തത് വേസ്റ്റ് ആകുകയും ചെയ്യും അത് എനിക്ക് ചില സമയത്ത് എനിക്ക് ഒരു ബലഹീനത ആയിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ എന്ത് പ്രശ്നവും ഏതു തരം സാഹചര്യത്തിലും നേരിടാം എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ട് ഇപ്പോൾ എന്ത് പ്രശ്നം വന്നാലും നമ്മൾ അതിനെ നേരിടും അത് എനിക്കൊരു ബലം ആയിട്ട് ആണ് തോന്നണേ ഏതു സാഹചര്യത്തിലും പുതിയൊരു സാഹചര്യത്തിനോട് പെട്ടെന്ന് പൊരുത്തപ്പെടാൻ പറ്റുക അങ്ങനത്തെ ചില കാര്യങ്ങൾ എനിക്ക് ഭയങ്കര ആത്മവിശ്വാസം ഉണ്ട് ഇപ്പോൾ പുതിയ സ്ഥലം അല്ലെങ്കിൽ പുതിയ ആൾക്കാര് അറിയപ്പെടാത്ത സ്ഥലം അങ്ങനത്തെ സ്ഥലങ്ങളിൽ ഒക്കെ പോയാലും അത്യാവശ്യം ഒന്ന് മാക്സിമം ഒരു ദിവസം കൊണ്ട് ഒക്കെ അവിടത്തെ ആൾക്കാരായിട്ട് നല്ല മിംഗിൽ ആവാനും കാര്യങ്ങൾ ഒക്കെ പെട്ടെന്ന് കാ ക്യാച്ച് അപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്